ഹലോ നമസ്ക്കാരം ഹയന്സ് റെസ്റ്റോറൻറ്റല്ലേ ഹലോ ഞാൻ അവിടുന്ന് ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് ഫുഡ് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർ ആണ് കെട്ടോ ഞാൻ സ്ഥിരമായി അവിടുന്ന് വാങ്ങിക്കുന്നതാണ് അപ്പോള് കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ ഞായറാഴ്ചയും എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ ഉച്ചത്തെ ഭക്ഷണം നിങ്ങടെ റെസ്റ്റോറൻറ്റിന്നാണ് വാങ്ങുന്നത് അത് മെയിനായിട്ടുള്ള കാരണം നിങ്ങളുടെ ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റും രുചിയും പിന്നെ ഞാനൊരു ദിവസം അവിടെ വന്നു കഴിച്ചപ്പോള് എനിക്ക് മനസിലായി വളരെ വൃത്തിയോടും വെടിപ്പോടും കൂടെയാണ് നിങ്ങള് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോള് അത് കണ്ട് ഇഷ്ട്ടപ്പെട്ടിട്ടാണ് ഞാൻ എല്ലാ വട്ടവും അവിടുന്ന് തന്നെ ഫുഡ് വാങ്ങി കഴിക്കാറ് അപ്പോള് ഇന്നെനിക്ക് അവിടെ നേരിട്ട് വരാന് പറ്റാത്ത ഒരു സാഹചര്യത്തില് ഞാൻ വീട്ടില് ഇരുന്ന് വിചാരിക്കുകയായിരുന്നു ഓർഡർ ചെയ്യാം അപ്പോള് നമുക്ക് ഭക്ഷണം രുചിയായിട്ടുള്ള നിങ്ങളുടെ ഫുഡ് ഞങ്ങൾക്ക് കഴിക്കാലോന്ന് വിചാരിച്ചാണ് ഞാൻ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടുന്ന ഉച്ചയ്ക്കുള്ള മൂന്നു ഫ്രൈഡ് റൈസും രണ്ട് ചിക്കൻ ചില്ലിയും ഒരു പെപ്പറോണി പിസയും നാല് അഞ്ച് അഞ്ച് ലൈം ജ്യൂസും നമ്മളവിടുന്ന് ഓർഡര് ചെയ്തത് അതിന്റെ കൂടെ ഒരു ഷവായി ചിക്കനും കൂടെ ഓഡറെയ്തായിരുന്നു അപ്പോള് ഇത്രയും ഞാന് ഓഡര് ചെയ്തിട്ട് പേയ്മെന്റ് ഓപ്ഷനിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോള് നിങ്ങളുടെ ഓൺലൈനിൽ ഞാൻ ഇപ്പോള് ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോഴാണ് എനിക്ക് മനസിലാവുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല ബാക്കി യു പി ഐ വഴിയോ ഗൂഗിൾ പേ വഴിയോ പേയ്റ്റിഎം വഴിയോ അങ്ങനെയുള്ള മാർഗത്തിലൂടെ അല്ലെങ്കില് കാർഡ് വഴിയോ മാത്രമേ നിങ്ങള്ക്ക് നിങ്ങളുടെ അവിടന്ന് ഫുഡ് വാങ്ങുമ്പോള് ഓൺലൈൻ ആയിട്ട് പേമെന്റ് നടക്കത്തുളളൂ എന്നു ഞാൻ കാണുന്നത് പക്ഷെ എന്റെ കയ്യിൽ ഇപ്പോള് പൈസയാണ് ഉള്ളത് അപ്പോള് എന്റെ കയ്യില് ഇപ്പോള് പൈസയുണ്ട് ഇപ്പോള് നിങ്ങള് കൊണ്ട് സാധനം തന്നാല് നിങ്ങൾക്ക് തരാൻ ആവശ്യമായ പൈസ എന്റെ കയ്യിലുണ്ട് പക്ഷെ അതിങ്ങനെ യു പി ഐ വഴി ഇടാനോ ബാങ്കില് അക്കൗണ്ടില് ഇല്ല പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അപ്പോള് ഞങ്ങള് നോക്കി സ്ഥിരമായിട്ട് വാങ്ങുന്ന കടയാണ് അവിടുന്നു തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് ഓർഡറീയ്തു ലാസ്റ്റ് പേയ്മെന്റ് ഓപ്ഷൻ എത്തിയപ്പോഴാണ് മനസിലാകുന്നത് ഇങ്ങനെ ഓർഡറെയ്യാന് പറ്റത്തില്ല ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ നിങ്ങള്ക്കില്ലാന്ന് അപ്പോള് ഞാൻ ചോദിക്കണേ ഞങ്ങള് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമർ ആണ് നിങ്ങളുടെ ഫുഡ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് വാങ്ങിക്കുന്നേ നിങ്ങളും കച്ചവടം ചെയ്യാന് വേണ്ടിയാണല്ലോ നടത്തുന്നത് നിങ്ങള്ക്കിപ്പോള് ഞങ്ങളുടെ കയ്യില്നിന്ന് നിങ്ങൾ തരുന്ന സാധനത്തിന് പൈസ കിട്ടുന്നത് കൊണ്ടാണല്ലോ നിങ്ങളും ജീവിച്ചു പോകുന്നത് അപ്പോള് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷൻ നിങ്ങള്ക്ക് അവൈൽ ആക്കാന് പറ്റുമോ കാര്യം ഇപ്പോള് കാലം മാറി എല്ലാരേലും എല്ലാരെ കയ്യിലും ഫോൺ ഉണ്ട് ഡിജിറ്റലുണ്ട് ഗൂഗിൾ പേ ഉണ്ട് പേറ്റിഎം ഉണ്ട് പക്ഷെ എന്നിരുന്നാലും കൈയില് പൈസ പൂർണ്ണമായും മാറിയിട്ടില്ലല്ലോ അപ്പോള് എല്ലാവരും ഡിജിറ്റലിലേക്ക് മാറിക്കാണത്തില്ല അപ്പോള് അങ്ങനെയൊരു സാഹചര്യത്തിൽ നിങ്ങള് പൂർണ്ണമായിട്ട് ഈ ഓൺലൈൻ നെറ്റോ ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻ മാത്രം വച്ചാല് അത് ഞങ്ങളെ പോലെ നിങ്ങളുടെ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഭക്ഷണ പ്രേമികൾക്കുള്ള ഒരു തിരിച്ചടിയല്ലേ അപ്പോള് ഞങ്ങള്ക്ക് കഴിക്കണമെന്നു തോന്നി അങ്ങ് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അവിടുന്ന് ഓഡറെയ്തു അപ്പോള് നിങ്ങള് ഞങ്ങള്ക്കുവേണ്ടി ഫുഡ് റെഡിയാക്കി കൊണ്ടു തരുന്നു ഡെലിവറി ചെയ്യാനും ആളുണ്ട് കൊണ്ടുത്തരാനും ആൾക്കാരുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ കൈയിൽ തന്നെ പൈസ കിട്ടണമെന്നുള്ളൊരു ഓപ്ഷൻ ഇരിക്കുന്നതു കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോള് ഫുഡ് നിങ്ങളുടെ അവിടുന്ന് കഴിക്കാൻ നിവർത്തിയില്ല ഞങ്ങള്ക്ക് വന്ന് കഴിക്കാനുള്ളൊരു സാഹചര്യവും ഇല്ല അപ്പോള് ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങള്ക്കൊന്ന് പരിഗണിച്ചുകൂടേ ഈ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനും കൂടെ കാര്യം അപ്പുറത്തെ റെസ്റ്റോറന്റിൽ എല്ലാതുണ്ട് കഴിഞ്ഞ വട്ടം ഞങ്ങള് വേറെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലിരുന്ന് ഫ്രണ്ട് ഓഡറെയ്തപ്പോള് അവിടത്തെ ആ എല്ലാം ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ കൊടുത്താണ് അവര് ഫുഡ് വാങ്ങിച്ചത് അപ്പോള് നിങ്ങള് ഇത്രയും നല്ല റെസ്റ്റോറൻറ്റാണ് ഇത്രയും എന്തോരം കസ്റ്റമേർസ് നിങ്ങള്ക്കുണ്ട് അപ്പോള് നിങ്ങള്ക്കും ഈയൊരു ക്യാഷ് ഓൺ ഡെലിവറി വീട്ടില് കൊണ്ട് സാധനം തരുമ്പോൾ ഫുഡ് തരുമ്പോള് പൈസ തന്ന് അത് മതി എന്നുള്ള രീതിയിലേക്ക് നിങ്ങള്ക്കതും കൂടെ ഉൾക്കൊള്ളിച്ചുകൂടെ ഇപ്പോള് ഓൺലൈൻ പേയ്മെന്റ് വേണ്ടാന്നല്ല വേണം ഓൺലൈനായിട്ട് പൈസ കൊടുക്കണം പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ കൈയില് പൈസ കൊടുക്കുന്ന രീതിയും കൂടെ നിങ്ങള്ക്ക് പരിഗണിച്ചാല് കുറേക്കൂടി കച്ചവടം ഞങ്ങളെ പോലെ പാവപ്പെട്ട പാവപ്പെട്ടാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഭക്ഷണം ഇഷ്ട്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അത് കഴിക്കാനായിട്ട് സ്വാദിഷ്ടമായിട്ട് നിങ്ങൾ പ്രിപ്പയറെയ്ത നിങ്ങളുടെ അടുക്കളയില് പ്രിപ്പയറെയ്ത ഭക്ഷണം കഴിക്കാൻ ഞങ്ങള്ക്ക് സാധിക്കുമല്ലോ കൈയില് പൈസയുണ്ടെന്നും പറഞ്ഞ് അത് കൈയിലാണ് പൈസയുള്ളത് എന്നുള്ള ഒറ്റ കാരണത്താല് ഞങ്ങള്ക്ക് അത് നിഷേധിക്കുന്നത് ശരിയാണോ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങള് പറയൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന്